ഓരോ വ്യക്തിയും കലാകാരന്മാരും കലാകരികളുമാണ് കാരണം ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞിനും അവനിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കലാപരമായ കഴിവുകളുണ്ട് ആ കലയാണ് ജീവിതത്തിൽ അവനെയേറെ സഹായിക്കുന്നത് തന്നെ ജീവിതത്തിൽ കലയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ഉയർത്തി എടുക്കുന്നത് വേണമെങ്കില് തീർച്ചയായിട്ടും കലയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം തന്നെ ഉണ്ട് ഉള്ളിലുള്ള ഒരു വെളിച്ചത്തെ കണ്ടെത്തുകാനും കണ്ടെത്തിയതിന് ശേഷം അവയെ വളർത്തുവാനും ഓരോ വ്യക്തിയും ശ്രമിച്ചിട്ടുണ്ടെങ്കില് കലയുടെ വെളിച്ചം ഈ സമൂഹത്തില് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കലായെന്ന് പറഞ്ഞാല് ജീവിതം തന്നെ ഒരു കലയാണ് കലാകാരന്മാര് അവരുടെ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ അവതരണത്തിലൂടെ പങ്കുവെയ്ക്കുന്ന ഒരുപാട് വലിയ ആശയങ്ങളുണ്ട് നമ്മുടെ നാടിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കലയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നാടകങ്ങളിലൂടെ കവിതകളിലൂടെ പാട്ടുകളിലൂടെ അവതരണങ്ങളിലൂടെ അങ്ങനെ ഒട്ടനവധി ദൃശ്യാവിഷ്കാരങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൽ വ്യക്തമായ മാറ്റങ്ങള് വരുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് നിമിത്തമാകുവാനായിട്ട് കലകൾക്ക് സാധിക്കും അതുപോലെ ഒരു സമൂഹത്തെ ലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ കലയിലൂടെ സാധിക്കും ഒരു സമൂഹത്തിൽ നിലനിന്ന് പോരുന്ന അനാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളേയും ഒക്കെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ കല ഒരു സമരത്തിനുള്ള ഒരു വേദി കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ഓരോ കലയും അതിൻ്റെതായ ധർമ്മം കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും കലയിൽ നിലനിൽക്കുന്ന ഒരു സമൂഹം കലയെ പ്രോൽസാഹിപ്പിക്കുന്ന ഒരു സമൂഹം അത് നാടിൻ്റെ വലിയ സമ്പത്ത് തന്നെയാണ് അങ്ങനെ നിരവധി കലാകാരന്മാരാൽ കലാകാരികളാൽ സംമ്പുഷ്ഠമാകട്ടെ നമ്മുടെ നാട്